നമ്മള് ഒരു പാചകം ഒരു വിനോദവൃത്തിയായിട്ടുള്ളൊരു വ്യവസമ വ്യവസായമാക്കി മാറ്റണം എന്ന് ഓർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഞാനങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് മുതലേ ഞാനെന്ത് ഉണ്ടാക്കിയാലും അതിന് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഞാനിങ്ങനെ അതായത് ലോക്ക്ഡൗൺ ടൈമിലാണ് കൂടുതലും ഓരോ സാധനങ്ങളും ഇങ്ങനെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കി എത്ര എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ ഇന്ന് വരെ അത് ഫെയിൽ ആയിട്ടില്ല അതാണ് അതിൻ്റെ ഒരു വിജയവും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഉണ്ടാക്കുവാണെങ്കിലും അടിപൊളി നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും എല്ലാവരും എല്ലാവരും നല്ലവണ്ണം കഴിക്കും അതുകൊണ്ട് തന്നെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓക്കെ വിനോദവൃത്തി ആയിട്ട് അതായത് വ്യവസായം ആക്കി തീർക്കാൻ തോന്നിയത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് അതായത് ഇപ്പം ഞാൻ പാചകം അതായത് ഞാനിപ്പം ഒരു ക്യാന്റീൻ ആണ് നടക്കണത് നടത്തുന്നത് അപ്പം എല്ലാവരും എന്നോടിങ്ങനെ പറയും നീ തന്നെ അടിപൊളിയായിട്ട് വയ്ക്കുവല്ലോ അപ്പം നിനക്ക് എന്തെങ്കിലും അതായത് ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങിക്കൂടേ എന്നൊക്കെ ചോദിക്കും എന്നോട് എല്ലാവരും അപ്പം ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല തുടങ്ങാം എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നോട് എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു ഞാൻ ഇങ്ങനെ പൈസ ഹസ്ബന്റിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല പൈസ ഒക്കെ ഉണ്ട് അപ്പം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഞാൻ ഒരു ക്യാന്റീനോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് തരാം എന്ന് പറഞ്ഞു അപ്പോൾ ആണ് ഇവിടെ ഗവൺമെന്റ് കോളേജിലൊരു വേക്കൻസി വന്നത് അപ്പം ഞാനെന്ത് ചെയ്തു കാന്റീനിൽ ഗവൺമെന്റ് കോളേജിലെ ക്യാന്റീനിലെ സാറിനോട് ഹസ്ബൻഡ് സംസാരിച്ചു എല്ലാം റെഡി ആക്കി ഗവൺമെന്റ് കോളേജിലെ ക്യാന്റീനിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാനും എൻ്റെ കൂടെ വേറൊരു ചേച്ചിയും വേറൊരു വേറൊരു പെണ്ണും കൂടെയുണ്ട് അപ്പം നമ്മൾ മൂന്ന് പേരും കൂടെയാണ് ചെയ്യുന്നത് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഞാൻ തന്നെയാണ് അതായത് കുഴച്ച് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യും പിന്നെ എന്ന് വെച്ച് രണ്ട് മൂന്ന് ദിവസം ഒക്കെ അവർ ഒക്കെ സാമ്പാർ ഒക്കെ അവരും വയ്ക്കും പലഹാരങ്ങളൊക്കെ കൂടുതലും ഞാൻ ഉണ്ടാക്കും പലഹാരം ഒക്കെ ഞാൻ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് എന്ന് എല്ലാവരും പറയുക അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ അവർക്കും പഠിപ്പിച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അവരും നല്ലവണ്ണം ചെയ്യുന്നുണ്ട് ഇപ്പം അവർ നല്ലവണ്ണം ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ ക്യാഷ് ഒക്കെ മേടിക്കാൻ ഒക്കെയാണ് നിൽക്കുന്നത് പാചകം ഒരു വിനോദവൃത്തിയായിട്ടുള്ള ഒരു വ്യവസാ വ്യവസായമാക്കി തീർത്തുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ കൂടുതലും അതായത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി ഹസ്ബന്റിനോക്കെ കൊടുക്കാൻ തുടങ്ങി അതുതന്നെ എൻ്റെ ഒരു വലിയ ഒരു സന്തോഷം ഉള്ള ഒരു കാര്യമാണ്